ഇത് ഈ കൊച്ചി ഐ ടി കമ്പനിയിൽ ഒരു സെക്യൂരിറ്റിയെ ആവശ്യമുണ്ട് അതിനായിരുന്നു

ഇല്ല കുഴപ്പമൊന്നുമില്ല ആ ചെക്ക് ചെയ്തായിരുന്നു കുഴപ്പമൊന്നുമില്ല വെയ്റ്റാറ് ആ തൂക്കം അറുപത് കിലോ നൂറ്റി അൻപത് സെൻറ്റീമീറ്റർ

എറണാകുളത്ത് ഒരു ഐ റ്റീ കമ്പിനീൽ വർക്ക് ചെയ്യുന്നു ആ ഒരഞ്ച് വർഷമൊക്കെയായിട്ടുണ്ട് ആ ഇപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടീട്ടാണ്

ആ ആ അത് നോക്കി ചെയ്തോളാ

പോവാം

വൈകിട്ട് ഓക്കെ